കേരളത്തിലെ ഈ സ്വകാര്യ ആശുപത്രി വര്ദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്റെ അഭിപ്രായം അത് കൊള്ള ലാഭമാണ് കൊള്ള ലാഭമെടുക്കുന്നവരാണ് അതുകൊണ്ട് കൂൺ മുളയ്ക്കുന്നപോലെ അവിടേയും ഇവിടേയും എല്ലാം ആശുപത്രികൾ നിമിഷനേരംകൊണ്ട് ക്ലീനിക്ക് ആശുപത്രികളൊക്കെ അത് ചില ആശുപത്രികളിലൊക്കെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആള്ക്കാർ ചെന്നാൽ ശരിക്കും അവർ കുത്തുപാള എടുപ്പിച്ചാണ് വിടുന്നത് ഉള്ളത് പറഞ്ഞാൽ അവർ പിന്ന സ്കാന് ചെയ്യേണ്ടാത്തതിനെ സ്കാന് ചെയ്യിക്കുക എക്സറേ എടുക്കേണ്ടാത്തതിന് എടുപ്പിക്കുക അവർ പഠിച്ച ഡോക്ടർമാരൊന്നു നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അവര്ക്ക് അറിയാം ഇന്ന കാരണമാണ് ഇന്ന ഗുളിക കഴിച്ചാൽമതി അല്ലേ ഇന്നത് ഇന്നത് ചെയ്താൽ മതിയെന്ന് എങ്കിൽപ്പോലും അവർ ഈ വന്ന പേഷ്യന്റിനെക്കുറിച്ച് എത്ര രൂപ അവര്ക്ക് കൊയ്യാമോ അത്രയും കൊയ്യത്തക്ക രീതിയിലുള്ള പിന്നെ ചെക്കപ്പുകൾ ചെയ്യിപ്പിക്കും ആ ചെക്കപ്പുകൾ ചെയ്യുമ്പോൾ ഈ വന്ന വ്യക്തിയുടെ കാശില്ലയെങ്കിലും അവർ പണയം വെച്ചോ കള്ളക്കടം മേടിച്ചോ ആധാരം വിറ്റ് ഉള്ള സ്ഥലം വിറ്റാണെങ്കിലും അവർ ചികത്സ ചെയ്യും കാരണം നമ്മുടെ രോഗിയെ രക്ഷപ്പെടുത്തണമല്ലോ അപ്പം ഈ ആശുപത്രികളെക്കുറിച്ച് പറയാനാണെങ്കിൽ തന്നെ ശരിക്കും മനസ്സാക്ഷിയുടെ പുറത്ത് പ്രവര്ത്തിക്കുന്ന ഒറ്റ ആശുപത്രിപോലും ഇപ്പം കേരളത്തില് ഇല്ലെന്നുതന്നെ പറയാം കാരണം നേരത്തെ ഒരു പരുവത്തിനൊക്കെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചെയ്യാതിരുന്നവര് പോലും ഇപ്പം മറ്റുള്ളവരെ നോക്കിയുള്ള ഇതാണ് വേറൊരു ആശൂത്രിക്കാർ പിന്നെ അത്രയും പണം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ അതു കേട്ട് കഴിയുമ്പോഴത്തേക്ക് വാശിപ്പുറത്ത് ഞങ്ങൾക്ക് ആയിക്കൂടെ എന്നുള്ള ഇതിലാണ് ഇത് ഇപ്പോൾ അതുപോലെ അവർ പറയുന്ന സ്ഥാപനത്തിൽപ്പോയി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് പിന്നെ എക്സറേ സ്കാനിങ്ങ് ഇതൊക്കെ ചെയ്യാനാണ് അവർ പറയുന്നത് കാരണം അവിടേയും അവർ കമ്മീഷന് എല്ലാം കമ്മീഷന് വ്യവസ്ഥയിലുള്ള ഇതാണ് പിന്നെ ഒരു രോഗിയില് നിന്ന് എന്തോരം പൈസ വാങ്ങി ബില്ലടിക്കും ബില്ല് എത്ര കൂട്ടാമോ അത്രയും കൂട്ടിയാൽ ഈ ഡോക്ടര്ക്ക് പോലും അവിടെ പ്രൊമോഷനും അവര്ക്ക് അവരുടെ സാല്റിയിൽ വര്ദ്ധനവൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആശുപത്രി ഈ കേരളത്തില് വരുന്ന ഈ ആശുപത്രിയുടെ ഇത് വര്ദ്ധിക്കാനുള്ള ഏക കാരണം സാമ്പത്തികമായിട്ടുള്ള ഇത് ഇതാണ് അവർ ഒന്നും നോക്കുന്നില്ല രോഗം ചെറുതായാലും വലുതായാലും അവര്ക്ക് കാശ് കിട്ടണം അത്ര മാത്രമേയുള്ളൂ അവർ പിന്നെ ആ മനഃസാക്ഷിക്ക് വിരുദ്ധമായിട്ട് തന്നെയാണ് ഇപ്പോള് നമ്മുടെ ഈ കേരളത്തിലെ ആശുപത്രികളെല്ലാം ഒട്ടുമുക്കാലും പ്രവര്ത്തിക്കുന്നതെന്ന് എനിക്ക് പറയേണ്ടതായി വരും